ഞാൻ എൻ്റെ പ്രോഡക്ട് എന്നു വച്ചിട്ടുണ്ടെങ്കിൽ ഹീറ്റർ ആയിരുന്നു അപ്പം അതെങ്ങനെയാണ് വച്ചിട്ടുണ്ടെങ്കിൽ കരണ്ട് കുത്തിയിട്ട് നമ്മളിങ്ങനെ ബക്കറ്റിൽ വെള്ളം നിറച്ച് വെള്ളം അത് വച്ചിട്ടുണ്ടെങ്കിൽ ചൂടാവും അതായിരുന്നു അതായത് അങ്ങനത്തെ ഹീറ്റർ ആയിരുന്നു അപ്പം അതിൻ്റെ ഉപയോഗം എന്നു വച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം എവിടെയെങ്കിളും പോയി പെട്ടെന്ന് നമ്മൾ വീട്ടിലേയ്ക്ക് വരുമ്പോൾ അതായത് അല്ലെങ്കിൽ ഇപ്പോൾ മഴക്കാലത്താണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇപ്പം അടുപ്പെല്ലാം കത്തിക്കാൻ മടിയാണെങ്കിൽ അതായത് നമുക്ക് പെട്ടെന്ന് ഇതിങ്ങനെ കറണ്ടിൽ കുത്തിയിട്ട് വെള്ളത്തിൽ വച്ചാൽ നമുക്ക് നല്ല ചൂടുവെള്ളം കിട്ടും പിന്നെ അതായത് പിന്നെ എന്താണെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ സോളാറിനൊക്കെ ഭയങ്കര ചിലവായിരിക്കും നമ്മൾ സോളാറൊക്കെ വയ്ക്കുകയാണെങ്കിൽ നല്ല പൈസ ചിലവായിരിക്കും പക്ഷേ ഹീറ്റർ എന്നു വച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അതിലും കുറേ കുറച്ചു പൈസ കുറവായിട്ട് മേടിച്ചാൽ മതി പിന്നെ അത് നമുക്കൊരു ലാഭമാണ് പിന്നെ നമ്മളിപ്പോൾ അതാണ് കുളിക്കാൻ ഒക്കെ ചിലവർ ഗ്യാസിലൊക്കെയായിരിക്കും വെള്ളം വയ്ക്കുന്നത് അപ്പം അതിൻ്റെ ചിലവും കുറയ്ക്കും ഇപ്പം ഗ്യാസിലൊക്കെയാണെങ്കിൽ കുറേ നേരെയാകും പക്ഷെ ഹീറ്റർ ആവുമ്പം നമുക്ക് സമയ ലാഭമാണ് പെട്ടെന്ന് വെള്ളം ചൂടായി കിട്ടും അങ്ങനെയൊക്കെ ഉപകാരം ഉണ്ട്